ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങളെന്ന് വച്ചാല് റോഡിലുടെയും ജല ഗതാഗതം പിന്നതുപോലെ റെയിൽ ഗതാഗതം അതുപോലെ വിമാനത്തിലൂടെയുള്ള ഗതാഗതം ഇതൊക്കെ ഗതാഗത മാർഗ്ഗങ്ങളാണ് നിലവിലെ വെല്ലുവിളി എന്ന് പറഞ്ഞാല് ഇപ്പോൾ റോഡിലൂടെയോക്കെ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കോ അതൊക്കെ ഉണ്ടാകും എന്നാൽ റോഡ് ജല ഗതാഗതം എന്ന് പറയുമ്പോൾ അത് ചരക്കുകളും മറ്റു വിനോദസഞ്ചാരികളും അതുപോലുള്ള ആവിശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജലഗതാഗതം പൊതുവെ ആൾക്കാര് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ വിമാനത്തിലൂടെ ഒര് രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ പെട്ടന്ന് തന്നെ എത്താൻ വേണ്ടിയൊക്കെ വിമാനത്തിലൂടെയും ആൾക്കാരിപ്പോൾ ഇപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നതുപോലെ ട്രാൻസ്പോർട്ടേഴ്സ് ഒരുപാടുണ്ട് റോഡിലൂടെ തന്നെ ഒരുപാട് വാഹനങ്ങൾ മൂന്ന് ചക്ര വാഹനങ്ങളും ഒരു ചക്ര വാഹനങ്ങളും രണ്ട് ചക്ര വാഹനങ്ങളും ഒക്കെ രണ്ട് ചക്ര വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നിലവിലെ വെല്ലുവിളിയെന്നു വച്ചാൽ ഇത് തന്നെ സാധ്യതയും ഇപ്പോൾ ഒരുപാട് എല്ലാരും ഇപ്പോൾ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഒരുപാട് ഗതാഗത മാർഗ്ഗങ്ങളുണ്ടിപ്പോൾ